കായികമത്സരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കുറെയധികം പൈസ തൊള്ളേ തോന്നിയോണം വാരികോരി ചെലവാക്കിച്ചിട്ട് കാര്യില്ല ഇപ്പൊൾ ഫുട്ബോളാണ് അത് ചെറു പ്രായത്തിൽ തന്നെ അതിനുള്ള താത്പര്യമുള്ള കുട്ടികളെ നമ്മളോരോ സ്കൂൾ ലെവലില് കണ്ടെത്തി അവർക്ക് വേണ്ടി ഒരു അക്കാദമി തുടങ്ങുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സ്കൂള് തുടങ്ങുക അവർക്ക് വേണ്ടി അങ്ങനെ ഓരോ കായിക മത്സ നമുക്ക് ലോക ശ്രദ്ധത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെക്കെ മറ്റുള്ള കളികളില് ഹൊ ഗെയിംസുകളിലൊക്കെ നമുക്ക് നേടണ നേടണമെന്നുടെങ്കില് അതിനനുസരിച്ചിട്ടിള്ള അക്കാദമിക വഴി അതല്ലേൽ കോളേജ് തരത്തില് അല്ലെങ്കിൽ ചെറുപ്പം മുതല് തന്നേ കുട്ടികളെ വളർത്തി എടുത്താൽ മാത്രമേ നമുക്കൊക്കെ കായികമേഖല മെച്ചപ്പെടുത്താൻ കഴിയുള്ളു ഇത് അവര് അങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കണെങ്കില് അവർക്ക് അതിന് വേണ്ടുതായ എല്ലാവിധ പ്രോത്സാഹനവും നമ്മള് കൊടുക്കണം പക്ഷെ എല്ലാവർക്കും അങ്ങനെ പ്രോത്സാഹനം കൊടുത്തിട്ട് ഒരു കാര്യമില്ല അതില് സൊ സ്വതസിദ്ധമായ ഒരു താല്പര്യമുള്ളവർക്ക് മാത്രേ അത്തരത്തിലുള്ള പ്രോത്സാഹനം കൊടുത്തിട്ടോ അല്ലെങ്കിൽ കൂടുതൽ പണം അവർക്ക് വേണ്ടി ചെലവഴിക്കാം അത് ഫുട്ബോളായാലും ശരി ഹോക്കി ആയാലും ശരി ഏതൊരു കളിയായാലും ശരി നമുക്ക് ആ കളികളിൽ മെച്ചപ്പെട്ട ഒരു ഇത് ഉണ്ടാവണമെങ്കിൽ സംസ്ഥാനം ഒട്ടുക്കെ ഉള്ള സ്കൂളുകളെ കേന്ദ്രീകരിച്ച് അതിനോട് പ്രൊ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി അത് ആണായാലും പെണ്ണായാലും കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കാനും അവർക്ക് വേണ്ടി സ്പോർട്സ് തലത്തിലൊള്ള അക്കാഡമികള് ഇപ്പൊൾ സ്പോർട്സ് തലത്തില് എല്ലാവരേയും കോമണായിട്ട് ഇങ്ങനെ വിളിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല അവര് വരുന്നവര് അതിനോട് താല്പര്യം ഒള്ളവരും അവര് സ് അവർടെ അവർക്ക് അവരുടെ മേ കുടുംബപരമായ കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങള് വെറുതെ കാ ഇപ്പൊൾ എന്താ പറയാ പേരെടുക്കാൻ വേണ്ടി ഉള്ളതല്ല പക്ഷെ ആ കളിയോട് കുറച്ച് ആത്മാർത്ഥതയും സത്യസന്ധ്യതയും ഉണ്ടാവണം അല്ലെങ്കിൽ അതിനോട് കുറച്ച് ആഭിമുഖ്യം ഉണ്ടാവണം വീട്ടിലാച്ചാൽ യാതൊരു വിധ ഇതുല്യാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബത്തിലുള്ള കുട്ടികളും ഈ തരത്തില് അതിനോട് താല്പര്യമുള്ളവരുണ്ടാകും അല്ലെങ്കിൽ അതിന് കൂടുതല് ആഭിമുഖ്യം ഉള്ളവരുണ്ട് അവരെ കണ്ടെത്തി അവരെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചെടുക്കണം അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ട സൗകര്യങ്ങളും സർക്കാർ ചെയ്ത് കൊടുക്കണം കുട്ടികളീ കളിച്ച് കളിച്ച് കളിച്ച് അവസാനം കളിയില്ല ഏ കാര്യവുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപെടുക എന്ന പേടിയാണ് സത്യത്തില് കായികമേഖല നമ്മളവടെ തളരുന്നതിൻ്റെ മെയിൻ കാരണം അതുകൊണ്ട് കായികമേഖല മെച്ചപ്പെടുത്താൻ നമ്മള് അടി മുതൽ വളരെ ചെറുപ്പം ഒരു എട്ട് വയസ്സ് മുതലെങ്കിലും നമ്മള് കുട്ടികളെ കണ്ടെത്തണം അവരിൽ കൂടിയാണ് അവരെ വളർത്തിയെടുക്കണം അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം അത് വെറുതെ സ്കൂളിൽ ഒരു മറ്റേ ഈ ഇത് നടത്തി അത് കഴിഞ്ഞ് അത് ജില്ലയിൽ നടത്തി അത് കഴിഞ്ഞ് സംസ്ഥാനത്ത് ഇങ്ങനെ പോരാ അത് ചെയ്യേണ്ടത് ഓരോ കുട്ടികളേയും കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം ദൈനംദിനത്തില് അവരെ ദത്തെടുത്ത് കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സ്കൂൾ സ്പോർട്സ് സ്കൂളുകളുണ്ടാക്കുക ആ സ്പോർട്സ് സ്കൂളില് ഏത് സ്വിമ്മിങ്ങാണെങ്കിലും ശരി ഫുട്ബോൾ ആണെങ്കിലും ശരി ക്രിക്കറ്റ് ആണെങ്കിലും ശരി ഹോക്കി ആണെങ്കിലും ശരി ഗുസ്തിയാണെങ്കിലും ശരി അതിനോട് ആഭിമുഖ്യമുള്ള കുട്ടികളെ ആദ്യം കണ്ടെത്തണം എന്നിട്ട് അവരെ പ്രത്യേകം തെരഞ്ഞ് പിടിച്ച് അവർക്ക് പ്രത്യേക പരിശീലകരുമായിട്ട് അവരെ പ്രത്യേകം ഒരു തരം തിരിച്ച് അവർക്കൊരു പ്രത്യേകം വേണ്ടീട്ടുള്ള സ്കൂളുകള് കണ്ടെത്തുക അവർക്ക് പ്രത്യേക പരിശീലനം കൊടുക്കുക അവരുടെ കുടുംബത്തേക്ക് അതുപോലെ ഇതൊക്കെ പഠിച്ച് വളർന്നാൽ അവർക്കൊരു ഭാവിയുണ്ടാവും എന്ന ഉറപ്പ് അവരുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് കായികമേഖല മെച്ചപ്പെടും